ഞാൻ പുതിയ പ്ലാസ്റ്റിക് കണ്ടൈനർ വാങ്ങിച്ചു പക്ഷെ അവർ പറഞ്ഞതെന്നു പറഞ്ഞാൽ അത് നല്ല അടപ്പ് നല്ല ടൈറ്റാണ് അതിനകത്ത് സാധനങ്ങളിട്ടു വെച്ചിരുന്നാൽ പന്ത്രണ്ട് മണിക്കൂറു വരെ ആ ചൂട് മാറാതിരിക്കും എന്നൊക്കെയാണവർ പറഞ്ഞത് പക്ഷെ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നുപയോഗിച്ചപ്പോൾ അത്രയും സമയമൊന്നും അതിരിക്കൂല ഒര് അഞ്ച് നാലഞ്ച് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേയ്ക്കും അത് ആ ചൂടൊക്കെ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് പക്ഷെ പിന്നീടിവിടെ കൊണ്ടുവന്നപ്പോഴാണ് മക്കൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെന്തിനാമ്മാ പ്ലാസ്റ്റിക് വാങ്ങിച്ചത് എന്നൊക്കെ അവർ പറഞ്ഞത് അപ്പോഴെനിക്കും തോന്നി പ്ലാസ്റ്റിക് കണ്ടൈനർ വാങ്ങിക്കണ്ടായിരുന്നു അവർ പറഞ്ഞത്ര ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാനും അതിനു സാധിച്ചില്ല പിന്നെ പ്ലാസ്റ്റിക്കിനേക്കാൾ ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങളുപയോഗിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്നെനിക്കു തോന്നുകയും ചെയ്തു പിന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ആ അവർ പറഞ്ഞാൽ ആ അതു കീപ്പ് ചെയ്യുക ഈ പാത്രത്തിനു സാധിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ഇഷ്ടപ്പെടുമായിരുന്നു അതുകൊണ്ട് എനിക്കതത്ര നല്ല ഒരു ഇതായിട്ട് തോന്നിയില്ല നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടെനിക്കത് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം